രാഷ്ട്രീയ സങ്കൽ സംഘർഷങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടീട്ട് മതത്തെ മുതലെടുക്കുന്നു എന്നല്ല മതം എന്ന് പറയുന്നത് തന്നെ പണ്ട് കാലത്ത് മതങ്ങൾ ഉപയോഗപ്രദമായിരുന്നിരിക്കാം പണ്ട് എന്ന് പറയുന്നത് അഞ്ചോ പത്തോ അല്ലെങ്കിൽ അമ്പതോ വർഷം മുന്നെ അല്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മതം ഉണ്ടാക്കുന്ന സമയത്ത് അത് ചിലപ്പോൾ മനുഷ്യന്മാരെ ഒരുമിച്ച് കൊണ്ട് പോകാൻ വേണ്ടി ആ ഒരു സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അത് ഉപകാരപ്രദമായിരുന്നേക്കാം പക്ഷേ ഇന്നത്തെ കാലത്ത് അത് കാലഹരണപ്പെട്ട ഒരു ചിന്താരീതിയാണ് അതുമാത്രല്ല മതവും ദൈവവും എന്ന് പറയുന്നത് നിലയും ഇല്ലാത്തൊരു കാര്യമാണ് മതത്തിൻ്റെ പേരിൽ മനുഷ്യനെ വേർതിരിക്കാന്ന് പറയുന്നതും ഒട്ടും ശരിയായ ഒരു ഇതല്ല അതുകൊണ്ട് തന്നെ മതത്തെ മുതലെടുക്കുന്നു എന്ന് പറയുന്നതിൽ കാര്യമില്ല മതം തന്നെയാണ് ഈ മനുഷ്യരിൽ വിഷം കുത്തി വെക്കുന്നത് അപ്പം മതത്തിൻ്റെ ചിന്താധാരകള് മനുഷ്യർ ഏറ്റെടുക്കുമ്പോൾ അവർക്കും സ്വാഭാവികമായും അന്യമതത്തിലുള്ള വ്യക്തികളോട് ദേഷ്യം ഉണ്ടാകും അത് മാത്രല്ല മതത്തിൻ്റെ ഉന്നതങ്ങളിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് എപ്പോഴും ലാഭവും ഉണ്ടാവാറുണ്ട് അത് സ്വാഭാവികമായിട്ടും നടക്കുന്ന ഒരു കാര്യമാണ് അതേപോല തന്നെ മതം എന്ന് പറയുന്നത് മതത്തെ കച്ചവടമായി മതത്തെ കച്ചവടമായി മതം തന്നെ ഒരു കച്ചവടമാണ് മതത്തെ പ്രത്യേകിച്ച് ഒരു കച്ചവടമാക്കേണ്ടതില്ല അമ്പലങ്ങളായിക്കോട്ടെ അത് പണ്ട് മുതലേ അതുപോലെ തന്നെയാണ് അമ്പലങ്ങളായിക്കോട്ടെ പള്ളികളായിക്കോട്ടെ അല്ലെങ്കിൽ ആൾദൈവങ്ങളായിക്കോട്ടെ പുരോഹിതന്മാരായിക്കോട്ടെ ഇവരെല്ലാവരും ഒരു തരത്തിൽ കച്ചവടക്കാരാണ് ഇല്ലാത്ത വസ്തു വിൽക്കുന്ന കച്ചവടക്കാരാണ് മനുഷ്യരിലേക്ക് ഇത് ചിലർക്കൊക്കെ ദൈവം ഇല്ലാതെ ദൈവം ഒരു അദൃശ്യശക്തി ഉണ്ടെന്ന് വിശ്വസിച്ച് ജീവിക്കാൻ ഉള്ളവർക്ക് ചിലപ്പം ഒരു അനുഗ്രഹമായിരുന്ന് ഈ ആയിരിക്കാം പക്ഷേ അല്ലാതെ അങ്ങനെയൊരു ശക്തി ഇല്ലായെന്ന് വിശ്വസിക്കുന്നവർക്ക് അതൊരിക്കലും ഒരു വല്യൊരു കാര്യമായിട്ട് തോന്നാറില്ല പക്ഷെ അത് പറയുന്ന പറയുമ്പോൾ ഇവർക്ക് ഇപ്പോൾ മതത്തിലുള്ളവർക്ക് പൊള്ളുന്നൊരവസ്ഥയുണ്ട് അവർക്ക് വിമർശനങ്ങൾ സ്വീകരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും നടക്കുന്ന എന്തും ദൈവത്തിൽ അധിഷ്ടിതമാണ് എന്ന് പറയു വിശ്വസിക്കാനാണ് അവർക്ക് താൽപര്യം എവല്യൂഷൻ പോലും തെറ്റാണ് എന്ന് പറയുന്ന വ്യക്തികളാണ് രണ്ടായിരം വർഷം മുമ്പാണ് മനുഷ്യരുണ്ടായത് എന്ന് പറയുന്ന വ്യക്തികളാണ് ഈ മതത്തിലുള്ള പുരോഹിതന്മാരും അല്ലങ്കിൽ ആൾദൈവങ്ങളും ഒക്കെ മണ്ടത്തരങ്ങൾ വിളിച്ച് പറയാനും അല്ലെങ്കിൽ സത്യവും ശാസ്ത്രവും പിന്നെ അവരുടേതായിട്ടുള്ള ചിന്തകളും മതവും ഒക്കെ കൂട്ടിക്കലർത്തി കപടശാസ്ത്രങ്ങൾ പറയാനും ഒക്കെയുള്ള മനോധൈര്യമുള്ള വിഡ്ഡികളാണ് ഇവരൊക്കെ എന്ന് പറയേണ്ടിയിരിക്കുന്നു